ഹലോ ഹോട്ടൽ ആർ കെ ഡി അല്ലേ ഞാൻ ഒരു എന്റെ പേര് എലിസബത്ത് ഞാൻ ഒരു റീസർവേഷൻ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത് ജൂൺ നാളത്തേക്ക് വേണ്ടിയാണ് അപ്പോഴത്തേക്ക് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നേ അപ്പം അതൊക്കെ അതിന് നിങ്ങൾക്ക് അവിടെ വേറെ വല്ല പരുപാടി നടക്കുന്നുണ്ടോ അതൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഒരു സർപ്രൈസ് ആയിട്ട് നടത്താൻ വേണ്ടിയാണ് അപ്പം ആരും വേറെ പരിപാടി ഒന്നും ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല അപ്പം അതൊന്ന് ചെയ്തുതരാമോ എങ്ങനെയാണ് ഓക്കെ ഓക്കെ ഓക്കെ ഞാൻ നേരത്തെ അമ്പത് പേരാണ് ഞങ്ങൾ ചെറിയൊരു ഫംഗ്ഷൻ ആണ് നടത്ത് അപ്പം അപ്പം ഞങ്ങൾ ആ അപ്പം അതൊന്ന് ചെയ്ത് തരണം അപ്പം ഞങ്ങൾക്ക് ഗസ്റ്റിന് അസൗകര്യം ഒന്നും ഉണ്ടാവരുത് ബുദ്ധിമുട്ടൊന്നും ആവരുത് എന്തോ കേട്ടില്ല ഫുഡ് ഞങ്ങൾ അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ എല്ലാവർക്കും താൽപര്യം നാടൻ വെറൈറ്റീസ് ആണ് അപ്പം നിങ്ങളുടെ ഹോട്ടൽ കുറേ നാടൻ ഇങ്ങനെ വിഭവങ്ങളായിട്ട് ഫേമസ് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ ബുക്ക് ചെയ്തത് തന്നെ ഓക്കെ ഞങ്ങൾക്ക് ഇത്തിരി വ്യൂസ് ഒക്കെ വേണം ഫോട്ടോസ് ഒക്കെ എടുക്കാനും ഭയങ്കര മെമ്മറബിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് അതിനുള്ള സ്പേസ് ഒക്കെ കാണുമല്ലോ ആ അപ്പം ഞങ്ങളുടെ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാമല്ലോ അപ്പം സാഹചര്യം കൂടെ നോക്കിയിട്ട് വേണേ ആ അപ്പം നാളെ നാല് മണിക്കത്തേക്ക് വേണ്ടിയാണ് അപ്പോൾ അപ്പോഴത്തേക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് തരണേ ആ ചിലപ്പം ഇത്തിരി ലേറ്റ് ആവും കാലാവസ്ഥ അറിയാമല്ലോ അപ്പം അഞ്ച് മണി ആയാലും നിങ്ങൾ അതിനുള്ള സ്പേസ് ഞങ്ങൾക്ക് വേണ്ടി ഇട്ടേക്കണം വേറെ ഇതിനൊന്നും കൊടുത്തേക്കരുത് ഞങ്ങൾ നേരത്തെ വിളിച്ചുപറഞ്ഞതാണ് ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു സാർ